ഞാൻ ആമസോണിൽ നിന്ന് കുറേ ബെഡ് ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതു ഞാനൊരു കോംബോ ഓഫർ കണ്ടിട്ടാണ് മേടിച്ചത് എട്ടു ബെഡ് ഷീറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതായത് രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ആ ഓഫർ അന്ന് ഉണ്ടായിരുന്നത് എട്ടു ബെഡ് ഷീറ്റും പിന്നെ ഓരോ ബെഡ് ഷീറ്റിനും രണ്ട് പില്ലോ കവർ എന്ന രീതിയിലായിരുന്നു ആ ഓഫർ വന്നത് അപ്പോൾ അതിനകത്ത് പ്യുവർ കോട്ടൺ ഡബിൾ ബെഡ് ഷീറ്റ് എന്ന രീതിയിലായിരുന്നു അതിനകത്ത് ആഡ് കൊടുത്തിരുന്നത് നല്ല റിവ്യൂസും മോശമല്ലാത്ത റിവ്യൂസും ഉണ്ടായിരുന്നു അതു കണ്ട് ഞാൻ ഓർഡർ ചെയ്തു ഓർഡർ പറഞ്ഞ ടൈമിൽ തന്നെ ഡെലിവറായി എല്ലാം ചെയ്തു പക്ഷേ ഞാൻ ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ ആ ആഡിൽ കണ്ടതുപോലെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡല്ലായിരുന്നു കാരണം ഡിസൈൻസ് വേറെ ആയിരുന്നു മെറ്റീരിയൽ വേറെ ആയിരുന്നു അപ്പോൾ പ്യുവർ കോട്ടൺ എന്നു പറഞ്ഞിട്ട് അതു ശരിക്കും എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റിയത് സിന്തെറ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ടാണ് ലൈക്ക് പോളിസ്റ്റർ കണ്ടന്റ് കൂടുതലുള്ള ഒരു ബെഡ് ഷീറ്റായിട്ടാണ് എനിക്കെല്ലാം തോന്നിയത് മാത്രമല്ല ഇപ്പോൾ പെട്ടന്ന് ഇല്ലാണ്ടായി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആയിരുന്നു ഒരു വാഷ് ചെയ്താൽ തന്നെ പെട്ടന്ന് ചുരുങ്ങി പോകുന്ന ടൈപ്പൊരു മെറ്റീരിയൽ ആയിരുന്നു പിന്നെ രണ്ടാമത്തെ വാഷൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കളറും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഓൾറെഡി അതിൽ കാണിച്ചിരിക്കുന്ന കളറുമല്ല വന്നത് കളറും പാറ്റേൺ ഒക്കെ കുറേ വ്യത്യാസമുണ്ടായിരുന്നു ശരിക്കും ആ ഓൺലൈനിൽ കാണിച്ച സംഭവമേ അല്ല കയ്യിൽ കിട്ടിയത് അറ്റ് ലീസ്റ്റ് ഷെയ്ഡ്സെങ്കിലും നല്ല രീതീയിൽ വന്നിരുന്നെങ്കിൽ ഒക്കെ കുറച്ച് സാറ്റിസ്ഫൈഡാവുമായിരുന്നു ഇത് ഒരു എന്ത് പറയണ്ടെ കുറച്ച് നാളു മാത്രം എനിക്ക് ആ ബെഡ് ഷീറ്റ്സെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയുള്ളു പിന്നെ പില്ലോ കവറിൻ്റെ സൈസ് പില്ലോ കവറിൻ്റെ സൈസെന്നു പറയുന്നത് വളരെ കുഞ്ഞ് സൈസായിരുന്നു പില്ലോടെ പകുതി മാത്രമേ അത് കയറത്തുളളുവായിരുന്നുള്ളൂ പിന്നെ അതു കഴിഞ്ഞിട്ട് അതിനെ പിന്നെ വേസ്റ്റാക്കി കളയേണ്ടി വന്നു ചിലത് ഇടുമ്പോൾ തന്നെ അതു കീറി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരു പ്രോഡക്ട്സായിരുന്നു അത് ശരിക്കും കൊടുത്ത കാശിന് ഒരു പ്രോഡക്ട് പോലും അത് നന്നായിട്ട് കിട്ടിയില്ല കംപ്ലീറ്റ് മോശപ്പെട്ട പ്രോഡക്ടായിരുന്നു അന്നേരം എനിക്ക് ലഭിച്ചത് അതിനു ശേഷം ഞാൻ പിന്നെ ഒരിക്കലും ഓൺലൈനിൽ നിന്ന് ബെഡ് ഷീറ്റ്സ് വാങ്ങിക്കത്തേ ഇല്ലായിരുന്നു